എൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് വച്ചാൽ നമുക്ക് ഈ കുറേ വിഷയങ്ങളെപ്പറ്റി പഠിക്കാൻ ഭയങ്കര താത്പര്യമാണ് അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയിട്ടും അഗാധമായിട്ട് അതിൻ്റെ ആ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ എന്റെ ബലഹീനത എന്നു വച്ചാൽ എനിക്ക് പുതിയൊരു സംഭാഷണം തുടങ്ങാൻ അറിയില്ല മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണമെന്നറിയില്ല